ഹലോ ഹലോ അതെ പറഞ്ഞോളൂ മാഡം ആ ഞാൻ ഫ്രീയാണ് മാഡം പറഞ്ഞോളൂ ആ ഓക്കെ ആ അതായത് ബീച്ച് സൈഡീൽ നിന്നു നമുക്ക് മെഡിക്കൽ കോളേജ് വരെ പോകണം അല്ലേ ആ ഓക്കെ ഇല്ല ഞാന് ഇപ്പോൾ ഉള്ളത് ഇവിടെ മുക്കത്താണ് ഉള്ളൂ ഇല്ല ഞാനൊരു ഹാഫ് ആൻ അവറിനുള്ളിലെത്താം മാഡം മാഡം ഒറ്റക്കാണോ ഉള്ളത് അതോ വേറാരെങ്കിലും കൂടെ ആ ഓക്കെ അപ്പോൾ നമുക്ക് വന്നുകഴിഞ്ഞിട്ട് എവിടേക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് മാത്രേ ഉള്ളോ അതോ വേറെ എവിടെങ്കിലും പോകണോ ആ വെയ്റ്റിംഗ് ചാർജ് നമ്മള് ഒരു മണിക്കൂറിനാണെങ്കിൽ നമ്മള് മുപ്പതുരൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ബീച്ചിൻ്റവിടുന്നാണെങ്കിൽ നമുക്കിപ്പോൾ കിലോമീറ്ററിനു നമ്മള് മിനിമം ചാർജു ചാർജ് ചെയ്യുന്നത് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ നമ്മള് ബാക്കി മീറ്ററിൽ എത്ര കിലോമീറ്ററോടുന്നുണ്ടോ അതിനനുസരിച്ചു മീറ്റർ ചാർജ് മാഡം തന്നാൽ മതി ഇല്ല അത് കുഴപ്പമില്ല മാഡം പേയ്മെൻറ് ചെയ്തിട്ടാണല്ലോ നമ്മള് പോകുന്നത് അപ്പോൾ അതൊരു കുഴപ്പമുണ്ടാകില്ല മാഡം ക്യാഷിപ്പം നമുക്ക് മീറ്റർ ചാർജെ നമ്മള് മേടിക്കയുള്ളൂ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റിംഗ് ചാർജിംഗിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുതരാനേ പറ്റുള്ളൂ മാഡം മ് അതിപ്പോൾ മാഡം ബീച്ചിൻ്റവിടുന്നല്ലെ നേരത്തെ എത്രനേരം കൊണ്ട് നമുക്ക് ടൈം എപ്പോത്തേക്കാണ് അങ്ങനെന്തെങ്കിലുമുണ്ടോ ടൈമെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ ഓക്കെ

ആയിക്കോട്ടേ മാഡം എന്തായാലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം മാഡം എന്തായാലും എന്നെയൊന്നു ഞാനെത്താറാകുമ്പോൾ മാഡത്തിനെ വിളിക്കാം മാഡം കറക്റ്റ് ഒന്നു ലൊക്കേഷൻ എനിക്കൊന്നു വാട്ട്സപ്പ് ചെയ്താൽ മതി ആ ഓക്കെ മാഡം ശരി